കേരളത്തിലെ യുവതലമുറ അഗ്രിക്കൾച്ചറിൽ നിന്നുള്ള മാറാനുണ്ടായ കാരണം ഒന്നാമതവര് അധ്വാനിച്ച് ശീലിച്ചിട്ടില്ല രണ്ടാമത് ഇതിൽനിന്നും വലിയ വരുമാനം ലഭിക്കുന്നില്ല കഷ്ടപ്പാടിനു തക്ക ഒന്നും ലഭിക്കുന്നില്ല എപ്പോഴും കഷ്ടപ്പാടും പണിയും മാത്രം അതിനുതക്ക ആദായം കർഷകനു ലഭിക്കുന്നില്ല ഇടനിലക്കാർക്ക് അതിൻ്റെ നാല് രണ്ടിരട്ടിയോളം കിട്ടുന്നുമുണ്ട് നമ്മളിപ്പോള് എന്തെങ്കിലും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വെച്ച് നട്ടു വളർത്തി വളവുമിട്ട് പരിപാലിച്ച് എല്ലാം ഒരു കച്ചവടക്കാരൻ കൊണ്ടുപോകുന്ന ചെറിയ ഒരു വാഴക്കുലയ്ക്കുപോലും നമുക്കതിൻ്റെ ഉല്പാദന ചെലവിൻ്റെ കഷ്ടി ച്ച് ഉള്ള ഒരു തുകയാണു നമുക്ക് ലഭിക്കുന്നത് അന്നാ കട കടയിലോട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന കച്ചവടക്കാരനതുകൊണ്ട് അയിൻ്റെ നാലിരട്ടി ഉണ്ടാക്കുന്നുമുണ്ട് അത് തക്ക കർഷക്കാരന് കൃഷിക്കായി കൃഷി ഒരുമാതിരി അവഗണിക്കുന്നത് കാരണം കൃഷിയെ അങ്ങ് പുച്ഛിച്ച് തള്ളുകയാണ് മനുഷ്യൻ ചെയ്തിരിക്കുന്നത് അതിലും അധ്വാനിക്കാതെ എങ്ങനെയാണ് കൂടുതല് പണമുണ്ടാക്കാൻ പറ്റുന്നതെന്നുള്ള മാർഗം തേടി യുവതലമുറ നീങ്ങുകയാണ് അവർക്കതിലേക്ക് താല്പര്യവുമില്ലാ വലി നല്ല ആദായം ലഭിക്കയാണെ ഇവര് ഇവിടെത്തന്നെ ഇതിൽതന്നെ ഉറച്ചുനില്ക്കുമെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ അതിപ്പോൾ ലഭിക്കുന്നില്ല അതാണ് അതിൻ്റെ കാരണം എന്ത് പിന്നെ ഇതെല്ലാം പരിപാലിക്കുന്നതും എപ്പോഴും പണി മാത്രമെ അതിനകത്ത് കാണാനുള്ളു അധ്വാനം മാത്രമാണ് എപ്പോഴും അതിന് ഇറങ്ങി തിരിച്ചാല് അല്ലാതെ കുട്ടികൾ എല്ലാ അതിലും സുഖകരമായ മേത്ത് ശരീരത്തൊന്നും ചെളിയും മണ്ണൊന്നും പിടിക്കാതെ അധ്വാനിക്കാതെ വിയർക്കാതെ പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങള് പിന്നെ നമ്മുടെ ലോകത്ത് എവിടോട്ട് നോക്കിയാലും ഉണ്ട് അതിലേക്ക് കുട്ടികളെല്ലാം നീങ്ങിയിരിക്കുന്നു പിന്നെ ഒരു സത്യം ഉണ്ട് ഏത് ഇതിലേക്കു നീങ്ങിയാലും ഏതുണ്ടാക്കണമെങ്കിലും ഒരു റോ മെറ്റീരിയൽസ് വേണം അത് നാച്ചുറൽ നിന്നയിരുന്നു തന്നെ കിട്ടുകയുള്ളു അതിനെ പരിപാലിക്കേണ്ടത് നമ്മുടെ ഗവണ്മെൻറ്റോ ഏതാ സർക്കാരുകളുടെ എല്ലാം ഒരു അത്യാവശ്യ ഘടകമാണത് അവര് ചെയ്ത് ഏറ്റെടുക്കേണ്ടതാണ് അതെല്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കാൻ എത്രമാത്രം പ്രോത്സാഹിപ്പിക്കാമോ നഷ്ടമാണെങ്കിലും ലാഭമായാലും അതിനെ എത്രയും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ അത്രയും പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്നാണേലും മനുഷ്യൻ ജീവിക്കുന്നിടത്തോളം കാലം ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും എല്ലാം വേണമല്ലോ പാർപ്പിടവും ഇതിൻ്റെ അടിസ്ഥാനം കൃഷി സംബന്ധമായി ഭൂമിയിൽ നിൽക്കുന്ന വസ്തുക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുള്ളു പക്ഷെ അതിനൊന്നും ഇന്നുള്ളൊരു വലിയ താല്പര്യം കാണിക്കാതെ എന്തെങ്കിലും ജോലിക്ക് പോവുക കിട്ടുന്ന ശമ്പളം കൊണ്ട് മാർക്കറ്റിൽ പോയി സാധനങ്ങള് ഏത് വിലയ്ക്കും വാങ്ങിച്ച് കഴിക്കുക അങ്ങനെയൊരു തലമുറയാണ് ഇപ്പോള് ഉള്ളത് അധ്വാനം അധികം ഉണ്ടാകുന്നുമില്ല ജീവിത നിലവാരത്തിനും വലിയ കുറവില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റുന്നു ഇതിൻ്റെ വരുമാ ഇതിൻ്റെ പ്രശ്നങ്ങള് പ്രധാന കാരണം ഇതിൽനിന്നുള്ള വരുമാന മാർഗതെ ങ്ങള് കുറവാണെന്നുള്ളതാണ് ചെറുകിട രീതിയിൽ ചെയ്താൽ ഒന്നും ലഭിക്കുന്നില്ല വൻകിട രീതിയിലാണെങ്കിൽ കുറേയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉണ്ടാകുമായിരിക്കും എന്നാലും പൊതുവെ ഈ രംഗത്തുനിന്ന് മനുഷ്യർ ഓടി അകലുന്നതായിട്ടാണ് ഇന്നു കാണുന്നത് എവിടെ നോക്കിയാലും പന്നീട് ശല്യവും എന്തു കൃഷി ചെയ്താലും എലിയുടെ ശല്യമായി പന്നിയായി പിന്നെ കാലാവസ്ഥയുടെ പ്രശ്നമായി എല്ലാത്തിനെയും കൂടെ നേരിട്ടാനുള്ള കഴിവുകളൊന്നും ഇന്നു മനുഷ്യർക്കില്ല ഇങ്ങനെയാക്കെ ആകുമ്പോൾ അതിനെല്ലാം കുറ അങ്ങനെയുള്ള

എന്നും മനുഷ്യന് ഭക്ഷണം വേണമെന്നുള്ളത് സത്യമാണ് അത് കൃഷിയിലൂടെ മാത്രം ഉണ്ടാകുന്ന അങ്ങനെയൊക്കെ അങ്ങനെ കൃഷി ചെയ്തുണ്ടാകുന്ന സാധനങ്ങളെ അല്ലേ മറ്റു പ്രോഡക്റ്റ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റു പക്ഷേ ആ പ്രോഡക്റ്റാക്കി മാറ്റുന്നവനു ലഭിക്കുന്നത് വൻ നേട്ടങ്ങളും അതിന് വേണ്ടി കിടന്ന് അധ്വാനിക്കുന്നവന് ലഭിക്കുന്നത് വളരെ തുച്ഛമായ വരുമാനം അതിൽ നിന്നുണ്ടാകുള്ളൂ അവരുടെ ജീവിത നിലവാരവും വേണ്ടവിധം ഉയരുന്നില്ല ഇതൊക്കെയാണ് കൃഷിയേ നിന്നും യുവതലമുറ അകലാനുള്ള പ്രധാന കാരണം പിന്നെ യുവതലമുറയെ അങ്ങോട്ട് ആക്കണമെങ്കിൽ ഇത് അവരിപ്പോൾ ചെയ്യുന്ന പോലെതന്നെ സമയത്തിനനുസരിച്ചൊരു അല്ലെങ്കിൽ ഒരു ജോലിയായി മാറുക അല്ലെങ്കിൽ മെഷീനുകളോ കൂടുതൽ വർക് ചെയ്യുക അധ്വാനം കുറച്ച് ചെയ്തുകൊണ്ട് അതില്നിന്ന് വരുമാനം ഉണ്ടാക്കാൻ നോക്കുക ജോലി ഭാരം അതിൽ വരുന്ന അധ്വാനത്തിൻ്റെ ഭാരം കുറെ കുറയ്ക്കുക അങ്ങനെവന്ന ഇപ്പോള് ഈ ഫീൽഡുകളിൽ ജോലി സംബന്ധമായി നീങ്ങുന്ന ഫീൽഡുപോലെതന്നെ ഇതിനെ ആക്കികൊണ്ടുവരുവാണെങ്കില് ഈ രംഗത്തും യുവതലമുറ ഇറങ്ങിവരും ഇതിൻ്റെ ലാഭം എല്ലാവർക്കും എന്നാ ചെയ്താലും ലാഭം കിട്ടണം അല്ലേ വരുമാനം ഉണ്ടാകണം നല്ല ജീവിത നിലവാരം വേണം അതിന് എന്താണെന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളു അങ്ങനെയുള്ളപ്പോള് പൂർവ പിതാക്കന്മാരായിട്ട് അധ്വാനിച്ച് അധ്വാനിച്ച് അതുകണ്ടാണ് യുവതലമുറയും വളർന്നത് അവര് കണ്ടപ്പോൾ മെച്ചപ്പെട്ടതൊന്നും അല്ലെന്നുള്ള ഇതുകൊണ്ടൊന്നും മെച്ചം ഉണ്ടാകുകയിലെന്നുള്ള ഒരു ചിന്തയും അവരിലുണ്ട് പിന്നെ അധ്വാനിക്കാൻ മടിയുമുണ്ട് വിദേശ രാജ്യങ്ങളിലും മറ്റും പോയി എന്ത് അധ്വാനിക്കുന്നുണ്ടവര് പക്ഷെങ്കില് അതിന് അത്ര അധ്വാനം പോലും ഇവിടെ വേണ്ട പക്ഷെ ഇതിനാണേല് ഒന്നാമത്തെ പ്രശ്നം വിപണിയാണ് വിപണിയിലൂടെ നല്ല വരുമാനമുണ്ടാക്കാൻ അവർക്ക് നേരിട്ട് പറ്റുമെങ്കിൽ എന്തെങ്കിലും കുറെ ആളുകളൊക്കെ ചെയ്യുമായിരുന്നു നല്ല രീതിയിൽ അതിപ്പോള് ഇടനിലക്ക് നില്ക്കുന്നവരെല്ലാം എടുത്തുകഴിഞ്ഞ അവരാ കൊണ്ടുപോകുന്നത് അവരെടുത്തു കഴിഞ്ഞാല് പിന്നെ നമുക്ക് കിട്ടുന്ന അധ്വാനിച്ചവനു കിട്ടുന്നത് വളരെ തുച്ഛമായ വരുമാനമാണ് നല്ലരീതിയിൽ ഇതെല്ലാം സർക്കാർ ഏറ്റെടുത്ത് സർക്കാർ നല്ലരീതിയിൽ ഇതിനെ ഈ ചെറിയ രീതിയല്ല ഫുൾ ഇതിനെ ഇങ്ങനെയുള്ള ഒരു രം രംഗത്തോട്ട് സർക്കാർ നല്ല തുക പണങ്ങളും മുടക്കി വലിയ വലിയ പ്രൊജക്ടുകളൊക്കെ ഇതിൻ്റെ തയ്യാറാവുകയാണെങ്കില് പിള്ളേർ ഉദ്ദ്യോ ജോലിക്ക് പോകുന്നതുപോലെ ഒരു ഒൻപത് മണിയാകുമ്പോള് ജോലിക്ക് പോവുക ശമ്പളം കൊടുക്കുക മാസം തോറും അഞ്ചു മണിയാകുമ്പോള് ജോലി തീർക്കുക മാസശമ്പളത്തിന് എടുക്കുക അങ്ങനെയൊക്കെ വന്നാല് ഇഷ്ടംപോലെ ആളുകള് ഇറങ്ങും ഇതൊരു യുവതലമുറ ഓടിയൊളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ വരുകയാണെങ്കിൽ അങ്ങനെ ഒക്കെ വരുക എന്നുള്ളത് അത്ര നിസാര കാര്യങ്ങളൊന്നുമല്ല